ഹലോ അ എടീ നീ ഒരു ഹൗസിനെ കുറിച്ച് പിന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഒരു ട്രഡീഷണൽ ഹൗസ് ഞാൻ കണ്ട് വെച്ചിട്ടുണ്ട് അത് നിനക്ക് എങ്ങത്തെ സൗകര്യങ്ങളൊക്കെ വേണ്ടെ അ

അ അ അതെ അല്ലെ നീ അങ്ങത്തെ ആണല്ലെ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻറ്റും കുട്ടിയും എല്ലാവരുംകൂടി വന്ന് താമസിക്കാൻ അതായത് എടുക്കാനാണോ അതോ റെൻറ്റായിട്ട് റെൻറ്റിന് എടുക്കാനാണോ റെൻറ്റിനാല്ലേ അ അ അ ഇപ്പോൾ ഇവിടെ ഒരിതുണ്ട് പിന്നെ ഒരു മാസത്തേക്കാണെങ്കിൽ നാൽപതിനായിരം രൂപ എങ്ങാന് വരും നമുക്ക് ഒരു ദിവസത്തിലേക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറാണ് വിത്ത് സ്റ്റേ പിന്നെ ഫുഡ് ഒക്കെ എങ്ങനെയാണ് വേണ്ടത്

അ അ വെജ് അല്ലെ തൊട്ട് അടുത്ത് തന്നെ അവിടത്തന്നെ ഉണ്ട് പക്ഷെ അവിടത്തെ ഭയങ്കര റേറ്റായിരിക്കും അ അ ഹോം സ്റ്റേ ഹോം സ്റ്റേ പോലെയാണ് പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് എൻ്റെ പിന്നെ കുറച്ച് അങ്ങോട്ട് നീ കണ്ടിട്ടില്ലേ എൻ്റെ വീട് ആംബിയൻസൊക്കെ പൊളിയാണ് നമ്മളിങ്ങനെ ഡോറൊക്കെ തുറന്നിട്ട് ഫുള്ള് വയല് അങ്ങനൊക്കെ ചുറ്റിനും അതായത് നാല്കെട്ട് നടുമുറ്റൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് തന്നെ കാണാം

അ ഫോർട്ടീൻ തൗസൻറ്റ് ഓക്കേ അങ്ങനെ ചെയ്യാനാ അ അ എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ എന്നാൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് എങ്ങനെ ആന്ന് വെച്ചിട്ട് അ ഓക്കേ ഓക്കേ എന്നാൽ നീ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ